ഹലോ ആ ആ ഓക്കെ പറഞ്ഞോളൂ മാഡം ആ അറിയാം മാഡം

അത് ഇപ്പോൾ മാഡം നമുക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ നാനൂറ്റി ചില്ലറ സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ആണ് നമുക്ക് പണിയാൻ പറ്റുള്ളൂ ആ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പഞ്ചായത്തിൽ നിന്ന് ഇവർ പറയുന്ന സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് വന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ

ആ ഓക്കെ മനസ്സിലായി ആ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്ലിന്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഇടം എക്സ്റ്റൻഡ് ചെയ്യാൻ പാകത്തിന് എന്നിട്ട് അവർ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മാറ്റി ബാക്കി കെട്ടിയാൽ മതി

ഓ ഉറപ്പായും ആ മാഡം പ്ലാൻ എന്തെങ്കിലും വരപ്പിച്ചിരുന്നോ അത് ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പ്ലാൻ തരും ആ പ്ലാനിൽ ആണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശേഷം നമുക്ക് അതിനകത്ത് എക്സ്റ്റൻഡ് ചെയ്യേണ്ട വർക്ക് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്തെടുക്കാം ആ പുറത്തേക്ക് ആ ഉദ്ദേശിക്കുന്നത് ഒറ്റ ഒറ്റ ഫ്ലോറേ ഉള്ളോ

ആ ഓക്കെ മനസ്സിലായി മാഡം ആ ഓക്കെ ഓക്കെ അത് നമുക്ക് അറേഞ്ച് ചെയ്തുതരാൻ പറ്റും എന്നത്തേക്കാണ് മാഡം വർക്ക് തുടങ്ങേണ്ടത് ആ ഓക്കെ ആ ഓക്കെ നമുക്ക് ഇപ്പോൾ അർജൻറ് ആയിട്ട് ഒരു രണ്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ മാഡം നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ അത് അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയതാണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്തായാലും മാഡത്തിൻറെ വർക്ക് ഒന്ന് വന്ന് ഞങ്ങൾ നോക്കാം ആ ആ ഓക്കെ മാഡം